ഞങ്ങളുടെ പ്രദേശത്ത് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ പാലക്കാട് ജില്ലയിൽ തന്നെ ടിപ്പു സുൽത്താൻ്റെ കോട്ട ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആ ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ ചരിത്ര പ്രാധാന്യമുള്ള ആ സ്ഥലം കാണാനും അതിൻ്റെ നിർമാണ രീതിയെക്കുറിച്ച് കാണാനും അ അത് അതിന് അതിനടുത്തുള്ള അതിനെ ചുറ്റും ഒഴുകുന്ന കനാല് കാണാനും പൂന്തോട്ട് പൂന്തോട്ടം കാണാനും ശില്പങ്ങള് കാണാനുമായിട്ട് ഒരുപാട് പേര് എത്താറുണ്ട് ഏറ്റവും പിന്നെ മലമ്പുഴ ഉദ്യാനം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മ ഉദ്യാനമെന്ന് പറയുന്നത് മലമ്പുഴ ഉദ്യാനമാണ് കാഴ്ച കാഴ്ച്ചയ്ക്കൊരു നവ്യാനുഭൂതി തന്നെ നൽകുന്ന ഒരു സ്ഥലം പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഉദ്യാനമാണ്